കേരള സംസ്ഥാനത്ത് പ്രധാനമായിട്ടുള്ള മത മതപരമായ ലാൻറ്റ്മാർക്ക് എന്ന് പറയുമ്പൊത്തേക്ക് കണ്ടുവരുന്നത് ഗുരുവായൂർ അമ്പല നടയും അമ്പലവും പിന്നെ മലയാറ്റൂർ തീർഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ അമ്പലത്തേക്കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും ആൾക്കാർ വിവാഹച്ചടങ്ങിനും മറ്റ് ചടങ്ങുകൾക്കുമാണ് വരുന്നത് അതൊരു തീർഥാടന്ന കേന്ദ്രമാണ് കൂടുതലും അവർക്ക് അവരുടെതായ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും മറ്റ് ചടങ്ങുകൾക്ക് വേണ്ടിയും അവർ കൂടുതലും അവർ വരാറുണ്ട് ഒത്തിരി ആൾക്കാരും ഒത്തിരി ബുക്കിങ്ങ് ഒക്കെ ചെയ്തിട്ടാണ് അങ്ങോട്ട് വരുന്നത് തന്നെ അവിടെന്ന് നല്ല ആൾക്കാരാണ് എപ്പഴും അവിടെ തിരക്കുകൾ മാത്രമാണ് അവിടെ ഒരൂ പരിപാടി നടത്താൻ ആണെങ്കിലും നേരത്തെ ഉള്ള ബുക്കിങ്ങ് ഒക്കെ അവിടെ അവൈലബിൾ ആണ് പിന്നെ ഒരു സമയങ്ങളിൽ ഡിസമ്പറ് മാസത്തിൽ അവിടെ ഭയങ്കര തീർഥാടനമാണ് അയ്യപ്പവിശ്വാസികളായ ഭക്തന്മാർ കറുത്ത ഡ്രസ്സ് ഒക്കെ ധരിച്ച് അവിടെ കയറിച്ചെന്ന് അവർ ഇത് ചെയ്യാറുണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവർ അങ്ങനെ ചടങ്ങുകളൊക്കെ ചെയ്യാറുണ്ട് അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ മലയാറ്റൂർ മലയാറ്റൂർ വിശുദ്ധ തോമാശ്ലീഹായുടെ നാമത്തിൽ അറിയപ്പെടുന്നതാണ് അവിടെയും ഇങ്ങനെ ഇതുപോലെത്തന്നെ വിശ്വാസികൾ ചെല്ലുന്ന സ്ഥലമാണ് അവിടെ കുരിശ് ഒക്കെ ചുമന്ന് കുരിശൊക്കെ ചുമന്ന് മലകയറിയാണ് ചെല്ലുന്നത് പതിനാല് സലങ്ങളാണ് വലിയ മലയാണ് ആ മല കയറുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ട് ആണെങ്കിലും വിശ്വാസികളായ വിശ്വാസികൾ തോമാശ്ലീഹായുടെ തോമാശ്ലീഹ ഭാരതത്തിൽ വന്നതിൻ്റ ഓർമ്മയും അതിന് കേരള സംസ്ഥാനത്ത് ഒരു പ്രതീകമായിട്ടും ആൾക്കാർ കയറുന്നത്തിൻ്റെ ഒരു പ്രതീകമാണ് അവിടെ ചെല്ലുമ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല തിരക്കാണ് മാർച്ച് റ്റു ഏപ്രിൽ കാലങ്ങളിലാണ് അവിടെ കൂടുതൽ ആൾക്കാർ ഇതിന് വേണ്ടി ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ തോമാശ്ലീഹായുടെ കാൽപ്പാട് കാണാൻ പറ്റും പിന്നെ ആനകുത്തിപ്പള്ളി കാണാൻ പറ്റും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും